ഇത് ജാൻസി ടീച്ചറാണ് വിശേഷം ഒന്നും ഇല്ല നാളെ അടുത്ത ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്യ്ര ദിനത്തെ കുറിച്ച് എന്തേലും തീരുമാനങ്ങളൊക്കെ എടുത്തോ ടീച്ചർ ആ അപ്പം പിന്നെ പിള്ളേർക്കൊരു പരേഡായിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ ആ അതിന് പിള്ളേരെയൊക്കെ നമുക്ക് ഒരുക്കണ്ടേ

ആ മ്മ്

നമുക്ക് ടൗണിൽ നടത്തിയാലും കുഴപ്പമില്ല പതാക നമുക്ക് സ്കൂളിൻ്റെ മുറ്റത്ത് ഉയർത്തിട്ട് നമുക്ക് ഒരു പരേഡായിട്ട് നമുക്ക് ടൗണിലേക്ക് പോയി തിരിച്ച് സ്കൂളിലേക്ക് വരാം നമുക്ക് എം എൽ ഏനേ ആരെയെങ്കിലും വിളിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം പിന്നെ നമ്മുടെ പി ടി എ പ്രസിഡൻറ്റും അധ്യാപകരും ഒക്കെ ഉണ്ടല്ലോ അവരുടെ എല്ലാം ഒരു ചെറിയ പ്രസംഗവും എല്ലാം വയ്ക്കാം നമുക്ക്

ആ അങ്ങനെ ഓരോ പിള്ളേരെ നമുക്ക് ഒരുക്കി നേരത്തെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് എല്ലാവർക്കും കൂടെ തീരുമാനിച്ച് പിള്ളേരെയൊക്കെ ഒരുക്കി നമുക്ക് ഇറങ്ങാം ആ അങ്ങനെ ആ റോസാപൂവൊക്കെ കൊടുത്ത് നമുക്ക് എന്തേലും ഒക്കെ ചെയ്യ് മ്മ് മ്മ് നമുക്ക് അതിന് പൂവൊക്കെ ഓർഡർ ചെയ്യണ്ടേ ടീച്ചറെ

നമുക്ക് ജസ്റ്റ് പതിനഞ്ചിന് മുൻപായിട്ട് നമുക്ക് ചെറിയൊരു കമ്മിറ്റി ഒക്കെ കൂടി നമുക്ക് തീരുമാനങ്ങളെടുക്കാം

ആ എന്നാൽ ചെറിയ കുട്ടികളെ നമുക്ക് ആൺകുട്ടികളെയൊക്കെ ആണെങ്കിൽ ഡ്രെസ്സില്ലാതെ ഡ്രസ്സ് ഉടുപ്പൊക്കെ ഊരിയിട്ട് മറ്റേ ഗാന്ധിജിയുടെ വേഷമൊക്കെ ധരിപ്പിച്ച് നമുക്ക് ഒരുക്കി ഇറക്കാം അതാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ആ ഫണ്ട് എന്തേലും നമുക്ക് കുട്ടികളോട് എന്തേലും ഒരു ചെറിയ രീതിയിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ നമുക്ക് രൂപീകരിച്ച് ഉണ്ടാക്കാം ആ ആ അങ്ങനെ മാതാ മാതാക്കളോട് പറഞ്ഞിട്ട് നമുക്ക് അതിന് തീരുമാനങ്ങളെടുക്കാം നമുക്ക് അടുത്ത ദിവസം തന്നെ കൂടാം ഇപ്പോൾ ഉടനെ തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സമയം ആകുകയല്ലെ അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് പി ടി എ യിൽ നമുക്ക് ആ ശരി ഓക്കെ ആ ആ ആ ശരി ആ ഓക്കെ